ഹലോ ഹായ് നന്ദി വളരെ നന്ദി നിനക്ക് സ്വാഗതം അത് ഇല്ല ദയവായി ക്ഷമിക്കണം ക്ഷമിക്കേണ്ട സുപ്രഭാതം ശുഭരാത്രി പിന്നെക്കാണാം സുഖമാണോ എന്തൊക്കെയുണ്ട് എന്താണ് നിൻ്റെ പേര് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നല്ലതു വരട്ടെ അഭിനന്ദനങ്ങൾ ചോറ് കഴിച്ചോ ചോറുണ്ടോ നിങ്ങളെവിടുന്നു വരുന്നു എവിടെയാണ് നിങ്ങളുടെ വീട് അകത്തേക്ക് വരൂ ഇരിക്കുക ശുഭ സന്ധ്യ ശുഭരാത്രി നല്ലതു വരട്ടെ നല്ലദിവസം നല്ല ഭക്ഷണം കഴിച്ചോ എനിക്ക് മനസ്സിലാകുന്നില്ല നല്ല യാത്ര യാത്ര ശുഭമാകട്ടെ സാവധാനത്തിൽ ഇരിക്കൂ മെല്ലെ പറയൂ ദയവായി അത് വീണ്ടും പറയു ഇല്ലെങ്കിൽ ഒന്നു കൂടി പറയു ദയവായി അത് എഴുതുക ഇത് എഴുതു നിങ്ങൾക്ക് മലയാളം അറിയുമോ നിങ്ങൾ മലയാളം പറയാമോ താങ്കൾ മലയാളം സംസാരിക്കുമോ കുറേശ്ശേ ഇത് എത്രാം തവണയാണ് ക്ഷമിക്കണം ദയവായി ഉപകാരം എനിക്കിത് വേണം വേണം ദയവായി എന്നെ സഹായിക്കാമോ ഞാൻ വിയോജിക്കുന്നു യോജിക്കുന്നില്ല നല്ലത് ബാത്രൂം എവിടെയാണ് എവിടെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെ ഒറ്റക്ക് വിടുക സഹായം മുൻപോട്ടു പോകു പിന്നോട്ടു പോകു